കെറ്റിൽ കെറ്റിലൊരു വൈദ്യുതോപകരണമാണ് ഇതു നമക്ക് വലിയ തരത്തിൽ വെള്ളം ചൂടാക്കാനും കാപ്പി ഉണ്ടാക്കാനും ചായ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കും സാധാരണ നമ്മള് തണുപ്പ് പ്രദേശങ്ങളിൽ കെറ്റിൽ വളരെ വളരെ വളരെയധികം ഉപയോഗകരമാണ് ഇത് മാത്രമല്ല സാധാരണ നമുക്ക് ഇങ്ങനയായിട്ടുള്ള കാര്യങ്ങളില് അതായത് വെള്ളം ചൂടാക്കാൻ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മള് ഗ്യാസിനേയും അടുപ്പിനേയും ആശ്രയിക്കാറുളളത് എന്നാൽ കെറ്റില് നമുക്ക് എടുത്തു കൊണ്ട് പോയി മറ്റൊരു സ്ഥലത്ത് വയ്ക്കാനും മറ്റൊരു സ്ഥലത്തുന്ന് ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരാനും കഴിയുന്നൊന്നാണ് ഏതൊരു ചെറിയ കുട്ടിയെ വേണെങ്കിൽ പോലും നമുക്ക് കെറ്റിൽ എടുത്തു കൊണ്ടു പോയി തിരിച്ചു വച്ച് ഉപയോഗിക്കുന്ന നിസ്സാരമായി ഉപയോഗിക്കാൻ കഴിയും എന്ന് മാത്രമല്ല അതിർത്തിയിൽ നിൽക്കുന്ന ജവാൻമാർക്ക് ആ സൈനികർക്ക് പോലും ഇത് വളരെ വലിയൊരാശ്വാസമാണ് ഈ കെറ്റില് കൂടുതലായിട്ട് ചൂട്കൂടാനും ചൂട് കുറയ്ക്കാനും താനെ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമുണ്ട് എന്നു മാത്രമല്ല കെറ്റിൽ വളരെയധികം നിസ്സാരമായിട്ട് ഒരു ചെറിയ കുട്ടിക്ക് വരെ നമുക്ക് ഉപയോഗിക്കാം കെറ്റില് കൂളായിട്ട് എടുത്ത് കൊണ്ടു പോകാൻ പറ്റും എന്നു മാത്രമല്ല ഊർജം വളരെയധികം കമ്മിയാണ് കെറ്റിലില് നമ്മള് ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ പുറത്തുന്നുള്ള വിറകായിക്കോട്ടെ ഗ്യാസായിക്കോട്ടെ ഇതെല്ലാം വളരെയധികം കഴിഞ്ഞു പോകുന്ന ഒരു ഉപയോഗമാണ് എന്നാൽ കെറ്റിലിലങ്ങനെയല്ല വൈദ്യുതി നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ഉണ്ടാക്കാനും കഴിയും എന്നുമാത്രല്ല വളരെ കുറവ് തരത്തിലുള്ള വൈദ്യുതിയാണ് കെറ്റിൽ ഉപയോഗിക്കുന്നത്